ഹലോ ഡിസ്നി മൊബൈല്സ് അല്ലേ ആ ഞാനൊരു മൊബൈല് മേടിക്കാന് ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനെ കുറിച്ച് ഒക്കെ കുറച്ച് കാര്യങ്ങള് ചോദിക്കാനായിരുന്നു വിളിച്ചത് അവിടെ ഈ വിവോ വൈ വി ഫിഫ്റ്റി ഫൈവ് എസ് ഫൈവ് ജി ഫോണ് ഉണ്ടായിരിക്കുമോ ആ അതിന്റെ റിവ്യു ഒക്കെ ഞാന് കൂടുതലും യൂട്ട്യുബിലായാലും ഒക്കെ കാണുന്നുണ്ട് അതാ ഇപ്പം ഞാനിപ്പം വിളിച്ചത് എൻ്റെ ഒരു ഫ്രണ്ട് ആയിരുന്നു ഇവിടുത്തെ ഈ നമ്പര് തന്നത് അപ്പോൾ അവന് പറഞ്ഞായിരുന്നു ഇവിടെ നല്ല ഇതിൽ ഫോണ് ഉണ്ട് എല്ലാം ഉണ്ട് വിളിച്ചാൽ നല്ല രീതിയിൽ പറഞ്ഞ് തരാനൊക്കെ ഉണ്ട് അവൻ്റെ ഒരു കൂട്ടുകാരൻ ആണെന്നൊക്കെ പറഞ്ഞായിരുന്നു ആ ഓക്കെ ഓക്കെ സാറെ ഞാൻ ആ അപ്പം മ്മ് എനിക്കാണെ ഒരു എട്ട് ജി ബി റാമിന്റെ ഒരു ഫോണ് ആയിരുന്നെ എട്ട് ജി ബി റാമും നൂറ്റി അല്ല ഇരുന്നൂറ്റമ്പത്താറ് ഉണ്ട് എട്ട് ഇരുന്നൂറ്റമ്പത്താറ് കാണുമോ എട്ട് ജി ബി റാമും ഇരുന്നൂറ്റമ്പത്താറ് ജി ബി റോമും ഉള്ള നമ്മൾ ഇപ്പോൾ അത്രയ്ക്ക് ഫുള്ള് ആയിട്ട് എടുക്കാൻ എമൗണ്ട് ഇല്ല ഞങ്ങൾക്ക് ഇ എം ഐ ക്ക് ഇ എം ഐ ആയിട്ട് വേടിക്കാനായിരുന്നു വേണ്ടത് ആ അപ്പം ഈയൊരു ഫോണിന് അപ്പം ഇ എം ഐ ക്ക് ആണെങ്കിലും ഇരുപത്തഞ്ചിന്റെ ഫോണ് അല്ലേ ഇരുപത്തയ്യായിരം രൂപയുടെ ഫോണ് ആകുമ്പോൾ നമ്മൾ വേടിക്കുമ്പോൾ നമ്മൾ തുടക്കത്തിൽ എത്ര രൂപ കൊടുക്കേണ്ടി വരും അതിൽ ഓ ഓരോ മാസം അ ഫൈവ് തൗസന്റ് വച്ച് ഇങ്ങനെ നമ്മൾ പേ ചെയ്യണം അല്ലേ അതിന്റെ കുറഞ്ഞത് കാണുമോ നമുക്ക് ഇപ്പം കുറഞ്ഞത് വല്ലതും കാണുമോ ഫൈവ് തൗസന്റ് അല്ലാതെ മ്മ് മ്മ് ആ നമുക്ക് എട്ട് ജി ബി തന്നെ വേണം ഓ ആറ് ജി ബി ആറ് ജി ബി ആണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ കൂടിയത് മേടിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ആറ് ജി ബി നമ്മൾ ഉപയോഗിച്ച് നമുക്ക് മടുത്തു അപ്പഴത്തേന് എട്ടിലോ ആ ഈ ഷോപ്പ് കറക്റ്റ് കറക്റ്റ് ലൊക്കേഷന് ഒന്ന് പറയാമോ ലൊക്കേഷന് ഒന്ന് പറയാമോ എനിക്ക് ഒന്ന് മ്മ് ഹ് ഇതിന്റെ ആറ് ജി ബി റാമിന്റെ ഒരു എത്ര ആണെന്ന് നമുക്ക് ഒന്ന് പറയുമോ ആറ് ജി ബി റാമും ന്റെ ഒരു ആണല്ലേ ഇതിന്റെ ക്യാമറയൊക്കെ എങ്ങനെയാ ക്യാമറയും ബേറ്ററി ബേക്കപ്പ് ഒക്കെ നല്ലത് ആണോ

അപ്പം എത്ര വര്ഷത്തെ വാറന്റി കാണുമായിരിക്കും ഈ ഫോണ് നമ്മൾ ഓക്കെ അപ്പം എന്തെങ്കിലും നമ്മള് എടുത്ത് കഴിഞ്ഞിട്ട് അടുത്ത് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആ കൊണ്ട് വരാമല്ലോ

ഓക്കെ ഇതിന്റെ കൂടെ നമ്മൾ അഡാപ്റ്ററും കാര്യങ്ങൾ ഒക്കെ കിട്ടോ അങ്ങനെ എന്തെങ്കിലും അതോ കേബ്ള് മാത്രമേ ഉള്ളോ

മ്മ് മ്മ് ആ ആ വാട്സാപ്പിലായിട്ട് ഇത് ഈ നമ്പറ് വാട്സ് നമ്പറ് ആണ് ഇതിൽ അയച്ചാൽ മതി ഞാൻ എന്തായാലും എനിക്ക് എന്തായാലും വേണം അപ്പോൾ എന്തായാലും ഇവിടുന്ന് തന്നെ ഒരു കടേ ഷോപ്പീന്ന് തന്നെ മേടിക്കാനാ എന്റെ ആഗ്രഹം

ആ എനിക്കൊന്ന് പെട്ടെന്ന് തന്നെ വേണം ഞാൻ രണ്ട് വര്ഷം കഴിയുമ്പം എനിക്ക് ആണെങ്കിൽ എനിക്ക് എൻ്റെ ജോബിന് പോവണമായിരുന്നെ അപ്പം എനിക്ക് ആണെങ്കിൽ കൊച്ചിയിലാണ് ജോബിന് പോവണ്ടേ അപ്പോൾ ഓക്കെ ഓക്കെ ഞാൻ അടുത്ത ദിവസം ഞാന് ഒന്ന് കോണ്ടേക്റ്റ് ചെയ്തോളാം ഓക്കെ ഓക്കെ ശരി ശരി